ഹലോ ഹലോ ആരായിരുന്നു ആ അതേ അതേ അതേ ആ ഓക്കേ ഓക്കേ നിങ്ങളപ്പോൾ എവിടുന്നാണ് ബാംഗ്ലൂ എവിടുന്നാണ് ആ ആ ഓക്കേ ഓക്കേ അപ്പം നിങ്ങൾ എത്ര പേരായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഏഴ് പേരല്ലേ അപ്പം നമുക്ക് നിങ്ങളെങ്ങനെ നിങ്ങളുടെ സ്വന്തം വണ്ടിയിലാണോ ഓ തീർച്ചയായും ആ തീർച്ചയായും തീർച്ചയായും കേരളം മുഴുവനായിട്ടുള്ള എങ്ങനെയാണ് ആ അങ്ങനെയാണോ അതോ നമുക്ക് കോഴിക്കോട്

നമുക്ക് മൂന്നാർ ഉണ്ട് ലക്കിടി ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പിന്നെ ഇതാക്കാം നമ്മൾ റെഡിയാക്കിത്തരാം നിങ്ങൾക്ക് എവിടെ പോണംന്ന് വെച്ചട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വാൻ നിങ്ങൾക്ക് ഡ്രൈവറെ ഒക്കേ ആവശ്യമില്ലേ ഡ്രൈവറും വണ്ടിയും ആവശ്യമില്ലേ അപ്പോൾ ഇവിടെ എവിടെ പോണംന്ന് വെച്ചാൽ നമ്മൾ അത് റെഡിയാക്കിത്തരാം പിന്നെ നിങ്ങൾ ഏതാ ഏത് ഡേറ്റിലാണ് വരുന്നത് പതിനഞ്ചാം തിയ്യതിയല്ലേ ആ ഓക്കേ അപ്പോൾ പതിനഞ്ചാം തിയ്യതി നിങ്ങൾക്ക് എല്ലാം നമ്മൾ റെഡിയാക്കിത്തരും നിങ്ങൾ ഒന്നും പേടിക്കണ്ട നമ്മൾ പിക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരേ നമുക്ക് ഇവിടെ ഒരു റിസോർട്ടുണ്ട് നമുക്ക് അവിടുന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലേ തൊട്ട് നമുക്ക് പിന്നെ എല്ലാ സ്ഥലങ്ങളൊക്കേ കാണാൻ പോവാം ഏഴ് പേരല്ലേ അപ്പോൾ നമ്മൾ ഇന്നോവ ബൊലേറോ അങ്ങനെ എന്തേലും എടുത്തിട്ട് വന്നാൽ പോരേ ആ ആ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ അങ്ങനെ എങ്ങനെയാണ് ആ ഫ്രണ്ട്സ് ആ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം നമുക്ക് ഒരു കുഴപ്പം ഇല്ല നമ്മൾ ഫുഡ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും പിന്നെന്താ നിങ്ങൾ പറയുന്ന സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തരും പിന്നെ നമുക്ക് കോഴിക്കോട് തന്നെ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് പുറമേം പോവാം കുഴപ്പോന്നുമില്ല എക്സ്പെൻസ് നിങ്ങൾ ആദ്യം ഒരു നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫൈവ് തൗസൻഡ് നമുക്ക് അഡ്വാൻസായിട്ട് തരിക പിന്നെ നമുക്ക് എല്ലാം കുടെ അവസാനം നമുക്ക് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പതിനാലാം തീയതി വൈകുന്നേരം ആണോ വരുന്നത് ആ ഓക്കേ ഓക്കേ ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ വന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാം പിന്നേ നമുക്ക് പിന്നെ വന്നിട്ട് ഇവിടേ വന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാട്ടോ ആ ഓക്കേ ടാങ്ക് യൂ